ആ ചേച്ചി നിങ്ങളുടെ കാൻ്റീൻ എന്തൊക്കെയാണ് കാൻ്റീനിൽ ഭക്ഷണങ്ങൾ ആ വേണം പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ്ഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പെ ആ കഴിച്ച് ആ കുട്ടിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വയർ അപ്പോൾ വയറിളക്കുവും ആയിട്ട് ഹോസ്പിറ്റലിൽ ആണ് ചിക്കൻ ബിരിയാണി

കഴിച്ചതിൻ്റ പിറ്റെ ദിവസം തുടങ്ങി കുട്ടി ഛർദ്ദിക്കാനും തുടങ്ങി വയർ ഇളക്കവും ഞങ്ങൾക്ക് ഒക്കെ ചെറുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കുട്ടിക്ക് മാത്രം ആ ഛർദ്ദി അത് എന്തായിരിക്കുമെന്ന് അറിയില്ല ഇവിടെ പാലാനിയിൽ ആ ഉം ആ ആ ഫുഡ്ഡ് പോയ്സൺ തന്നെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്

ചിക്കൻ ഒക്കെ പഴകിയത് ആയിരിക്കുമോ ചിക്കൻ ഒക്കെ പഴകിയത് ആയിരിക്കുമോ പറയുക ആ അവിടെത്തന്നെയാണ് കഴിച്ചത് വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഇല്ല ഇല്ല കഴിച്ചിട്ടുണ്ടായിരിന്നില്ല അവിടെത്തന്നെ വന്ന് കഴിച്ചത് കുട്ടിക്ക് മാത്രം പ്രശ്നം ആയതാണ് ഛർദ്ദി ആണ് നിൽക്കാത്തത്

ആ അതെ ആ റിസൾട്ട് കിട്ടി ഫുഡ്ഡ് പോയ്സൺ ആണെന്നാണ് പറയുന്നത്

നിങ്ങൾ അത് കൂടുതൽ ഇനി ശ്രദ്ധിക്കണം കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇപ്പം ഞങ്ങൾ ഇനി എന്താണ് പറയേണ്ടത് ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ചതല്ലെ ആ അപ്പം ഇനി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ആ ആ ആ ശരി ഉം